കഴിഞ്ഞ മാസം ഞാനും കുടുംബവും വേളാങ്കണ്ണിക്ക് പോയപ്പോൾ ഞങ്ങളുടെ ചെടികളെല്ലാം വെള്ളം ഒഴിക്കുന്നതിനായി ഞങ്ങളുടെ അയൽപക്കത്തുള്ള വിജയലക്ഷ്മി എന്ന് പറയുന്ന മകളെയാണ് ഞാൻ ഏൽപ്പിച്ചത് കാലത്തും വൈകിട്ടും വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ പോയേച്ച് വന്നപ്പോൾ ഞങ്ങളുടെ ചെടികളൊക്കെ നല്ല ഉന്മേഷമുള്ളതായിട്ടാണ് ഇരുന്നത് എനിക്ക് ചെടി കൃഷി ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമാണ് റോസ മുല്ല അതുപോലുള്ള ചെടികളാണ് ഞാൻ കൂടുതലും കൃഷി ചെയ്യുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പൂവൊക്കെ പറിച്ച് ഈശോയ്ക്ക് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഈ റോസച്ചെടി മുല്ല മുല്ലയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് എനിക്ക് ഒത്തിരി താല്പര്യമാണ് പലതരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ അതിന് കാലത്തും വൈകിട്ടും വെള്ളമൊഴിക്കും ഇങ്ങനെ പെരേടെ സൈഡിക്കൂടെ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല ര നല്ല രസമാണ് അത് കൊണ്ട് ചെടികളെല്ലാം പൂവിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ അപ്പോൾ അന്നേരം അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാതെ ഒരു സന്തോഷം തോന്നും നമ്മുടെ നട്ട ചെടിയേന്ന് ഒരു പൂ പറിച്ച് ഈശോയ്ക്ക് വെക്കുമ്പം അത് എനിക്ക് ര വലിയ സന്തോഷമാണ്